ഇപ്പോൾ ഇപ്പം എൻ്റെ ഫോണിൽ അല്ലെങ്കിൽ ലാപ് ടോപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നേരിടുകയാണെങ്കിൽ ഞങ്ങൾ കൂടുതലായിട്ടും സർവീസ് സെന്ററ് കാര്യങ്ങളൊക്കെയാണ് നോക്കാറ് അപ്പം ഞങ്ങളിവിടുന്ന് ആദ്യം ഇപ്പം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതായതിപ്പം നമ്മളിപ്പം ഒരു വർഷം വാറന്റി കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിനുള്ളിലെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ കൂടുതലായിട്ടും ഉപയോഗി അതായത് ചെയ്യാറ് അതായത് ഇപ്പം നമ്മൾ എവിടെ നിന്നാണോ ഇപ്പം ഫോണാണെങ്കിലും ലാപ് ടോപ്പാണെങ്കിലും വാങ്ങിയത് അവിടെ നിന്ന് തന്നെ ഞങ്ങൾ സർവീസ് ചെയ്യാൻ നോക്കും ഇപ്പം ഓൺലൈനാണ് വാങ്ങിയതെങ്കിൽ ഓൺലൈൻ വഴി നമ്മളവരെ എന്താ പറയുക കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും എന്നിറ്റ് അവർ വന്നിട്ട് ഈ സാധനം എടുത്തിട്ട് പോകും എന്നിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ നന്നാക്കിത്തരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറ് അല്ലെങ്കിലെന്നു പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു വർഷം കഴിഞ്ഞു അന്നിട്ട് കംപ്ലയിന്റ് ആവുകയും കാര്യങ്ങളൊക്കെയാണെങ്കിൽ നമ്മളിപ്പം അല്ലാത്ത സ്ഥലങ്ങളിലുള്ള സർവീസ് സെന്ററിലാണ് നമ്മൾ കൊടുക്കാറ് അപ്പം നല്ല കുറേ അത്യാവശ്യം നല്ല രീതിയിലുള്ള സേവന കേന്ദ്രങ്ങൾ ഇഷ്ടം പോലെയുണ്ട് കാരണം ഞാനും ഒരു എന്തായതിന് പറയുക ഒരു മൊബൈൽ മെക്കാനിക് കാര്യങ്ങളൊക്കെയായിരുന്നു പിന്നെ ഞാനാ ഫീൽഡ് വിട്ട് വേറെ സ്ഥലത്തേക്ക് പോയത്കൊണ്ടാണ് ഇപ്പം ടച്ച് വിട്ടതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും നേരിട്ടത് അപ്പം നല്ല രീതിയിലുള്ള സർവീസ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ എനിക്ക് കൂടുതലായിട്ടറിയാം ഞാനവിടെ പഠിച്ചിട്ടുള്ളതു കൊണ്ട് എനിക്ക് ആ കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ എന്താ പറയുക നല്ല രീതിയിലറിയാവുന്ന ഒരു കാര്യമാണ്